ഞങ്ങളുടേത് ഒരു ചെറിയൊരു ഗ്രാമമാണ് മങ്ങാട്ടുകര എന്ന് പറയും അടുത്ത സിറ്റി എന്ന് പറയുന്നത് അങ്കമാലിയാണ് അങ്കമാലിയിലേക്ക് രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ്സും ട്രെയിനും എല്ലാം ലഭിക്കും പക്ഷേ ഈ ഗ്രാമത്തിലേക്കൊരു പൊതുഗതാഗതം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അതൊരു നഷ്ടം തന്നെയാണ് എല്ലാവരും സ്വന്തം വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത് കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എല്ലാവരും ട്രാവലിങ്ങിന് വളരെ ബുദ്ധിമുട്ടുണ്ട് സ്വന്തം വാഹനങ്ങളും അല്ലങ്കിൽ നടന്നും ഒക്കെയാണ് സിറ്റിയിലേക്ക് പോകുന്നത് ഇത്രയും പുരോഗമിച്ചിട്ടും ഈ ഒരു ഗ്രാമത്തിലേക്ക് വാഹന സൗകര്യം ഇല്ല എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണ് അതുപോലെ റോഡിൻ്റെ കാര്യമാണങ്കിലും ടാർ ചെയ്യാത്ത റോഡുകൾ ഇപ്പോഴും ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളൊക്കെയുണ്ട് അപ്പോൾ ഒരുപാട് ഗതാഗത സംബന്ധമായ വെല്ലുവിളികളൊക്കെ ഇപ്പോഴും ഉണ്ട് ചില ഞങ്ങളുടെ ഈ ഗ്രാമം മാത്രമല്ല ഇതുപോലെ മറ്റു ഗ്രാമങ്ങളും ഉണ്ട്